ഹലോ നമസ്തേ എൻ്റെ പേര് അഞ്ജലി എന്നാണ് എനിക്ക് ഒരു ഗ്യാസ് സിലിണ്ടറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചിരുന്നത് അതെ ആ കൺസ്യൂമറെ നമ്പറ് വന്നിട്ട് മൂന്ന് പൂജ്യം എട്ട് ഏഴ് ആറ് അഞ്ച് നാല് രണ്ട് അതെ അതെ അതെ അതെ ഏഴ് മൂന്ന്

അതെയതേയതേ ഡെലിവറി അഡ്രസ്സിൽ മാറ്റം ഒന്നുമില്ല സെയിം അഡ്രസ്സന്നെയാണ് അതിൽ മാറ്റം ഒന്നുമില്ല അതെയതേ

ഓക്കേ കുറച്ച് വേഗത്തിലുള്ള പ്രോസസിംങ്ങാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഇത്തിരി നേരത്തെ ആവശ്യമുണ്ട് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ഉപകാരമായിരിക്കും ആ ഓക്കേ വളരെ ഉപകാരം നന്ദി നന്ദി താങ്ക് യൂ